ഹലോ ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിയതാണ് ചോപ്പറ് എനിക്ക് വളരെ ഇഷ്ടമായി അത് നല്ല ഉപകാരം ആണ് ഞാൻ ഒരു കൊറോണ ടൈമിലാണ് ടൈമിലൊരു വീട്ടിൽ ഇരിക്കണ ടൈമിലായിരുന്നു ഞാനത് വാങ്ങിയത് അന്നെനിക്ക് ഒരുപാട് ഇഷ്ടമായി അത് നല്ലൊരു ഉപകാരമുള്ള ഒരു സാധനമാണ് മോർണിംഗ് ടൈമിൽ എത്ര ടൈമുണ്ടെങ്കിലും നമുക്ക് തികയാത്തൊരു ടൈം ആണ് നമ്മൾക്ക് പല ഫുഡുകൾ ഉണ്ടാക്കേണ്ട ടൈമും കുട്ടികളെ സ്കൂളിൽ വിടുന്ന ടൈമും എല്ലാം ആണല്ലോ അപ്പം ആ ടൈമിലും നമുക്ക് എത്ര ടൈമുണ്ടെങ്കിലും നമുക്ക് തികയില്ല ഈ ഒണിയൻ ഒക്കെ കട്ട് ചെയ്യാനും വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യാനുമൊക്കെ നമ്മൾക്ക് ഒരുപാട് ടൈം വേണം ആ ടൈമിൽ നമുക്ക് ഈ ചോപ്പറുള്ളത് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ടൈംമ് ലാഭിക്കാൻ കഴിയുന്നുണ്ട് വെജിറ്റബിൾ ആണെങ്കിലും ഒനിയൻ ആണെങ്കിലും അതിൽ ഇട്ട് തന്നെ നമുക്ക് പെട്ടന്ന് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഒരു ഹെൽപ് ആണ് ഇപ്പം നമ്മൾക്ക് ഒരു സലാഡ് ഉണ്ടാക്കാൻ ആണെങ്കിലും നമുക്ക് വെജിറ്റബിൾ ഒരു എന്ത് കറിക്കാണ് ഉപ്പേരിക്കാണ് നമുക്ക് എന്തിന് വേണമെങ്കിലും നമ്മൾ അത് കട്ട് ചെയ്യാൻ നമുക്ക് എത്രയും പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് പിന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഒരുപാട് ഉപകാരമാണ് ഞാൻ എല്ലാവരെടുത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം വാങ്ങി അപ്പം അവർക്കും അത് ബോധ്യമായിട്ടുണ്ട് അത്ര നല്ല യൂസ്ഫുള്ളായ സാധനമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഒനിയനൊക്കെ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുക അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഇതിപ്പം നമ്മൾ ഒണിയനെ നാല് പീസ് ആക്കികൊണ്ട് അതിലിട്ടിട്ട് രണ്ട് വലി വലിച്ചാൽ നമുക്ക് ഒനിയൻ റെഡി കട്ട് ശരിക്കും ചെറിയ ചെറിയ പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് സലാഡിനൊക്കെ നമ്മൾ എത്ര നേരം ഇരുന്നാണ് ഇത് കട്ട് ചെയ്യുന്നത് അതായത് നല്ലൊരു യൂസ്ഫുൾ ആണ് നമുക്ക് കുറഞ്ഞ വിലയിലാണ് നമുക്ക് നല്ല ഓഫറിൽ കിട്ടിയതാണ് ചോപ്പറ് നല്ല റേറ്റും കമ്മിയായിരുന്നു ഉപകാരമാണെങ്കിലും നല്ല നല്ല വലിയ ഉപകാരവും ആണ് എനിക്ക് നല്ല ഇഷ്ടപെട്ട നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നല്ലൊരു പ്രോഡക്റ്റാണ് ചോപ്പറ്